നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഇപ്പോള് മെയിനായിട്ടൊരു വീട് പണി നോക്കുമ്പോള് ഏറ്റവും കൂടുതലായിട്ടു ചിന്തിക്കുന്നതു ജല ലഭ്യത അതുപോലെ തന്നെ വാസ്തുവും ഒരു മെയിനായിട്ടുള്ള കാര്യം തന്നെയാണ് വാസ്തുപ്രകാരം ഓരോന്നിന്റെയും സ്ഥാനം ഓരോ ബാത്റൂമിൻ്റെ സ്ഥാനം വേറെയാണ് കിടപ്പറയുടെ സ്ഥാനം വേറെയാണ് അങ്ങനെ അങ്ങനെ കിണറിനൊരു സഥാനമുണ്ട് അപ്പോള് നമ്മളിപ്പോള് ക്ലൈമറ്റ് വച്ചുനോക്കുകയാണെങ്കില് ഇപ്പോള് മഴവെള്ളമെല്ലാം കൂടുതൽ കിട്ടുന്ന സ്ഥലം പിന്നെ നല്ല ഹ്യൂമിഡിറ്റി കിട്ടണം ചൂട് ചൂട് കാലാവസ്ഥ അനുോജ്യമായിരിക്കാം അങ്ങനെ അപ്പോള് ഇതെല്ലാം നല്ല ള്ള മെറ്റീരിയൽസ് നമ്മള് യൂസ് ചെയ്യുന്നുണ്ട് അതെന്നുവച്ചാല് വെള്ളമകത്തു കടന്ന് ഡാമേജ് ആവാതിരിക്കാനുള്ള അങ്ങനത്തെ റെസിസ്റ്റൻസൊക്കെ യൂസെയ്യുന്നുണ്ട് പിന്നെ മൃഗങ്ങള് വന്യ മൃഗങ്ങളൊന്നും വീടിനകത്തേക്കു കടക്കാതിരിക്കാൻ പ്രൊട്ടക്ഷനായിരിക്കും അങ്ങനത്തെ പ്രൊട്ടക്ഷൻസൊക്കെ അപ്പോള് ഇപ്പോള് വലിയ വലിയ ഗേറ്റുകളൊക്കെയാണു നമ്മല് വയ്ക്കുന്നത് വലിയ നല്ല ഹൈറ്റുള്ള ഗേറ്റുകളൊക്കെയാണ് അത് ഓരോരുത്തരുടെ പ്രൊഫഷനനുസരിച്ചിരിക്കും പിന്നെ വലിയ വലിയ ആളുകളാണെങ്കിലെഞ്ചിനിയേഴ്സ് വലിയ വലിയ ആളുകളൊക്കെയാണ് വലിയ വലിയ ഹൈറ്റുള്ള ഗേറ്റുകളൊക്കെ ആയിരിക്കും അല്ലാത്തതു ചെറിയ മതിലും പിന്നെ പണ്ടത്തെ വീടുകളന്നൊക്കെ പറയുമ്പോള് മുള്ളുവേലികളൊക്കെയാണു വച്ചിരുന്നത് മൃഗങ്ങളൊന്നും അകത്തേക്കു കടക്കാതിരിക്കാൻ വേണ്ടി പിന്നെ അധികം വന്യ മൃഗങ്ങളുള്ള സ്ഥലത്തൊന്നും വീടുകളൊന്നും വയ്ക്കാതിരിക്കുക അല്ലാതെ നല്ല സേഫായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുവയ്ക്കുക പിന്നെ ബെഡ് റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കില് പണ്ടൊക്കെ രണ്ട് രണ്ട് റൂമില് രണ്ട് റൂം ഒരു ചെറിയ ഹാള് ചെറിയൊരു ഇടനാഴി അങ്ങനെ അങ്ങനെയായിരുന്നു പുറത്തായിരുന്നു ബാത്റൂം ഉണ്ടായിരുന്നത് രണ്ടു റൂമില്ത്തന്നെ ഒരു അഞ്ചംഗ കുടുംബങ്ങളുണ്ടാവും അഞ്ചു കുടുംബങ്ങളൊക്കെ ആ രണ്ട് റൂമിലും ഹാളിലും ഒക്കെ ആയിട്ടായിരിക്കും തങ്ങുന്നത് ഇപ്പോള് പക്ഷെ അങ്ങനെയല്ല ഇപ്പോഴെന്നു പറയുന്നത് ഓരോരുത്തർക്ക ഓരോ റൂമാണ് ഓരോ കുട്ടിക്ക് ഓരോ റൂമെന്നു പറയുന്നതു പോലെയാണ് നാലും അഞ്ചും ബെഡ്റൂമുകളാണ് വിത്ത് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ്സാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ വീടുകളൊക്കെ പണിയുന്നത് പിന്നെ ഒരു മോഡുലാർ കിച്ചൺ കിച്ചണൊക്കെ അടുപ്പല്ല അടുപ്പിനും അടുപ്പിനും മുകളില് ഇപ്പോള് ഗ്യാസിനും മുകളില് മോഡുലാർ കിച്ചണൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ പിന്നെ നുസരിച്ചാണ് ഓരോ വീടിൻ്റെ വലുപ്പവും വരുന്നത് യോജനഎന്നു പറയുന്നതു പാവപ്പെട്ട ഒരു റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്കു കഴിയുന്നതുപോലെ വീടുകള് വച്ചു പറ്റുന്ന വീടുകള് വച്ചു നൽകുന്ന ഒരു സ്കീമാണ് ഇന്ത്യയുടെ ഒരു സ്കീമാണ് യോജന എന്നു പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്കും ലൈഫ് മിഷനുണ്ട് അതുപോലെ തന്നെ വീടുവച്ചുനല്കാനുള്ള കാശു നൽകുന്നതാണ് എന്നിട്ട് കാശനനുസരിച്ച് നമ്മള് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീടുകള് നിര്മിക്കുക അങ്ങനെയൊക്കെയാണ് ഇപ്പോള് വീടുകളുടെ മാറ്റമെന്നു പറയുന്നത് ഇതാണ് ചെറിയ രണ്ട് റൂമുകളിൽ നിന്നും നാലും അഞ്ചും റൂമുകളിലേക്കായിട്ടുണ്ട് അതൊക്കെയാണ് ഇപ്പോള് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ ഓടെല്ലാം മാറ്റി ടെറസും രണ്ട് അപ്പ്സ്റ്റെയർ വീടുകളായി ടെറസ്സായി അങ്ങനെയാണു മാറ്റങ്ങൾ